ഒരു പുസ്തകമായിട്ടൊന്നും പറയാനില്ല പക്ഷേ ഒരു ചെറുകഥ പറയുകയാണെങ്കിൽ സീതാലക്ഷ്മിയുടെ മുടിയിലെ മുടിയിഴകൾ ഓ ഇന്ദുമേനോൻ്റെയാണ് പക്ഷെ എനിക്ക് പ്രത്യേകമായിട്ടൊരു ആദ്യം തന്നെ ഒന്നും മനസ്സിലായില്ല പിന്നെ പറയുകയാണെങ്കിൽ അതിൽനിന്നും വ്യത്യസ്തമായ ഒരു നിലപാടെന്ന് പറയുന്നത് എൽ ജീ വി കെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ എങ്കിൽ പോലും പല ഇടങ്ങളിലും നമുക്ക് ആർക്കും തന്നെ ഒന്നും മനസ്സിലാകാതെ വീണ്ടും വീണ്ടും ഉള്ള വായനയിലൂടെ മാത്രം മനസ്സിലാകുന്ന രീതിയിലാണ് ആ ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത് അത്കൊണ്ട് തന്നെ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല ആ ബുക്കിനോട് ബുക്കല്ല അതൊരു ചെറുകഥയാണ് ആ സ്റ്റോറിയോട് വലിയ താത്പര്യം ആ കഥയോട് വലിയ താത്പര്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ആർക്കും അത് പ്രെഫെർ ചെയ്യുകയോ സജസ്റ്റ് ചെയ്യുകയോ ചെയ്യുകയും ഇല്ല